ഇന്ത്യയിലെ ഔദ്യോധിക ഭാഷകളേതെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ മലയാളം ഹിന്ദി തമിഴ് ഉറുദു പഞ്ചാബി അങ്ങിനെ കുറേ ഭാഷകളാണ് നമുക്ക് മനസ്സിൽ വരുന്നത് എന്നാൽ ഈ നാലു ഭാഷകൾ മാത്രമല്ല ഇന്ത്യയിൽ നിലകൊള്ളുന്നത് പുതുതായ് വരുന്ന ഭാഷകളും കഴിഞ്ഞുപോയ മുൻ ജനറേഷൻസ് കൊണ്ടുവന്ന ഭാഷകളുമായി നിരവധി ഭാഷകൾ ഇന്ത്യയിൽ നിലകൊള്ളുന്നുണ്ട് എന്നാൽ കേരളത്തിലേതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മലയാളം മലയാളത്തിൽത്തന്നെ ഒരു തനിമലയാളം മാത്രമല്ല പല രീതിയിൽ തെക്കൻ വടക്കനെന്ന രീതിയിലൊക്കെ മലയാളത്തെ പാർട്ട് പാർട്ടായി തിരിച്ചിട്ടുണ്ട് അത് നമ്മൾ തിരിച്ചതല്ല അത് ഔദ്യോഗികമായി നിലകൊള്ളുന്നൊരു ഭാഷയാണ് ഇനി അഥവാ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്ത് ആൾക്കാർ ജോലിക്കായി പോവുകയും ഫോറിൻ കൺട്രീസിലെ ഓരോ ഇംഗ്ലീഷ് സ്റ്റൈൽ നമ്മുടെ മലയാളത്തിലേക്ക് കൊണ്ട് വരികയും ചെയ്ത പല രീതിയിലുള്ള മലയാളത്തിലെ മാറ്റങ്ങൾ നമുക്ക് ശ്രദ്ധി ശ്രദ്ധീകരണമാണ് അതുപോലത്തന്നാണ് ഹിന്ദിയിൽ നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യയിലെ പല ഭാഷകൾ നോക്കിക്കഴിഞ്ഞാലും